ഹലോ

അരുണിൻ്റെ അമ്മ ആണോ അതെ അവൻ പരീക്ഷയ്ക്കൊക്കെ വളരെ മോശം ആണല്ലോ

കേൾക്കുന്നില്ല അവനെന്താണ് പരീക്ഷയ്ക്ക് ഒക്കെ വളരെ മോശം എന്താണ് പഠിച്ചിട്ടൊന്നൂല്യേ പഠിപ്പിച്ചിട്ടില്യേ അവനെ

അവൻ എന്താ വീട്ടിൽ വന്നാൽ എന്താ ചെയ്യുക പക്ഷേ അവൻ പരീക്ഷ്യ്ക് കുറച്ച് മാർക്ക് കുറവാണ് ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറഞ്ഞേക്കാം വേറെ വേറെ ഒരു കുഴപ്പം ഇല്ല സൈലന്റ് നല്ല മോൻ ആണ് കുഴപ്പം ഒന്നും ഇല്ലാണ്ടു ഇരുന്നോളും പരീക്ഷ്യ്ക് മാർക്ക് കുറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്

ഓക്കെ ഓക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളം ശരി ശരി